നമ്മൾക്ക് അക്കാഡമിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലെ ഒരേപോലെ വാല്യു ഉള്ളതും തുല്യമായി അവകാശമുള്ളതുമാണ് നോൺഅക്കാഡമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പരിപാടികൾ അപ്പം അക്കാഡമിക് ആക്ടിവിറ്റീസിൽ നമ്മുടെ പഠിപ്പും റിസേർച്ചും നമ്മളുടെ പഠിപ്പ് റിലേറ്റഡായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും പക്ഷേ നോൺഅക്കാഡമിക് ആക്ടിവിറ്റീസിലാണ് പാട്ട് ഡാൻസ് അല്ലെങ്കിൽ ആർട്ട് ക്രാഫ്റ്റ് ഇങ്ങനെയുള്ള സൈഡായിട്ടുള്ള നമ്മൾ കൊണ്ടുപോകുന്ന നമ്മളുടെ പാഷനനുസരിച്ചു നമ്മൾ കൊണ്ടുപോകുന്ന ഓരോ കഴിവുകളും നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനിലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ടോ രണ്ട് അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ആയിട്ടുള്ള ആ ആക്ടിവിറ്റീസിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ കാരണം ഒരാൾക്ക് പഠിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ പോയാൽ തന്നെ അയാൾടെ നോൺ അക്കാഡമിക്കായിട്ടുള്ള സൈഡ് വളരെ വീക്കായിരിക്കും അപ്പം അങ്ങനെ വരാണ്ട് രണ്ടും ഒരുപോലെ തുല്യമായി കൊണ്ടുപോകാൻ ഒരു വിദ്യാർത്ഥിക്ക് പറ്റണം ഇപ്പോൾ ഞാൻ പാട്ട് പാടും എനിക്ക് പാട്ടുപാടാനുള്ള കഴിവുള്ളതുകൊണ്ടുതന്നെ ഞാനെൻ്റെ പഠിപ്പിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഞാനെൻ്റെ പാട്ടിലും എൻ്റെ കരിയർ അതിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിൽ കൊണ്ടുപോകാൻ വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ നിത്യേന പഠിപ്പെങ്ങനെയാണോ ഞാൻ ഒരു ദിവസം ക്ലാസ്സിലെടുത്തതെങ്ങനെയാണോ ഒരു ദിവസം പഠിച്ചു തീർക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ പാട്ട് ഞാൻ പ്രാക്റ്റിസ് ചെയ്യുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ സാധകം ചെയ്യും അതുപോലെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാ ആഴ്ചയും വീട്ടിപ്പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും പ്രാക്റ്റീസ് ചെയ്യും മുടങ്ങാതെ എൻ്റെ പാട്ട് ക്ലാസ്സും അറ്റൻഡ് ചെയ്യും അപ്പം രണ്ടും ഒരുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി പാട്ടിനോടുള്ള എൻ്റെയൊരു ഇഷ്ടം അത് പോകാണ്ട് നിലനിർത്താൻ തന്നെ പ്രാക്റ്റീസ് ചെയ്താൽ മാത്രമേ എപ്പോഴും അതുപോലെ നിലനിർത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാനതിനെ മാക്സിമം എപ്പോഴും ശ്രമിക്കാറുണ്ട് അങ്ങനെ തുല്യമാക്കി കൊണ്ടുപോകുമ്പോൾ നമുക്ക് രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും രണ്ടിലും ഒരുപോലെ വിജയം കൈവരിക്കാനും സാധിക്കും അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ പാട്ടും പഠിപ്പും ഒരുപോലെ കൊണ്ടുപോയത് പഠിപ്പ് നമ്മളൊരുപോലെ കൊണ്ടുപോകുന്നു ഒരുപോലെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതും നമ്മളുടെ കൈയിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെയാണ് പാട്ട് അത് നമുക്ക് കിട്ടീട്ടുള്ള ഒരു അനുഗ്രഹമാണ് അത് നമ്മൾ തിരിച്ചറിയാണ്ട് പോകരുത് അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് നമ്മൾ പ്രദർശിപ്പിക്കാണ്ട് പോകരുത് ഓരോ വേദിയും നമ്മൾ മാക്സിമം ഉപയോഗിക്കണം അല്ലേൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പാഴാക്കരുത് നമുക്ക് പാട്ടുപാടാൻ ഒരവസരം കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ മടി കാരണം നമ്മളത് വേണ്ടാന്ന് വെക്കരുത് നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റേജിലും മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്രയൊക്കെ പെർഫോം ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ കഴിവ് നമുക്ക് പരിപോഷിക്കാൻ പറ്റുകയുള്ളൂ